ആ പറയൂ ആണോ ഏതാ ബ്രീഡ് ബ്രീഡ് ഏതാണ് ബ്രീഡ് ഹലോ കേൾക്കില്ല ബ്രീഡ് ഏതാണ് ഡോഗിന്റെ ബ്രീഡ് ഏതാണ് ആണോ ഇന്നലെ പതിവില്ലാതെ വല്ലതും കഴിച്ചോ ആണോ ആ അയ്യോ ചോക്ലേറ്റും കേക്കും ഒന്നും കൊടുക്കരുത് കേട്ടോ ആദ്യമായിട്ടാണോ ഇത് കഴിക്കുന്നത് അത് ആദ്യം അങ്ങനൊന്നും കൊടുക്കരുത് കേട്ടോ ഇപ്പം അതിന് വല്ല ഇപ്പം എങ്ങനെയുണ്ട് അതിന് ആ ഇപ്പം ആ ഇപ്പം അതിനൊന്നും മെഡിസിന്സ് ഒന്നും കൊ അങ്ങനെ അതിനെ കുറച്ച് കെയർ ചെയ്യ് അപ്പം ഞാനിപ്പം വേണ്ട ട്രീറ്റ്മെന്റിനുള്ള മെഡിസിന് ഞാൻ വാട്ട്സപ്പിൽ അയച്ചേക്കാം ഈ നമ്പർ തന്നെയല്ലേ വാട്ട്സാപ്പ് നമ്പർ അപ്പം ഇത് തന്നെ ഞാൻ അതിനകത്ത് ഏതാണോ മെഡിസിന് വേണ്ടത് അതിനുള്ള മരുന്ന് ഇപ്പം അയച്ചുതരാം അതിപ്പം അതിന് കൊടുക്കുക പിന്നീടും അതിന് ക്ഷീണം ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് വരൂ കേട്ടോ ചിലപ്പോഴേ ഞാന് കാണുള്ളൂ ഇല്ലെങ്കിൽ വേറെ ഡോക്ടർസ് ഇവിടെ കാണും ഇപ്പം അതിന് വേറെ വല്ല ബുദ്ധിമുട്ടോ ക്ഷീണമോ വല്ലതും ഉണ്ടോ ആണല്ലേ ഓക്കെ ആ ഇനിയും അതിന് ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കേണ്ട കേട്ടോ ആ ഹാ ആ പിന്നെ ആണെങ്കിൽ അതിനിപ്പം ഇപ്പം ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡോഗ് ഫുഡ് ചെറിയ രീതിയിൽ ഇപ്പം എന്തെങ്കിലും കൊടുക്ക് ഇപ്പം അതിനൊരു ക്ഷീണം മാറാൻ വേണ്ടി ആ ഈ നാളെ ഇങ്ങോട്ടൊന്ന് കൊണ്ട് വരണം അല്ലേ ഇനി ഇപ്പം എന്നെ കാണിക്കത്തുള്ളെങ്കിൽ നാളെ ഇങ്ങോട്ട് അതിനെ കൊണ്ടുവരുമോ ഏ നാളെ ഒരു പത്ത് മണി ഒക്കെ ആവുമ്പോഴത്തേന് വന്നോ ഞാൻ പത്ത് മണിയാവുമ്പം ഇവിടെ വരും ഇന്ന് വരുവാണെങ്കിൽ ഞാൻ ആ ഇന്ന് വരുവാണെങ്കിൽ ഞാൻ ഇല്ല നാളെ വരുവാണെങ്കിൽ ഞാൻ ഉണ്ട് അതുവരെ അതിന് ആ പത്ത് മണിയാവുമ്പോഴത്തേന് എത്തിയാൽ മതി എന്നാലും ഇപ്പം വേണ്ട മ മരുന്ന് എന്തുവാണോ അത് ഞാന് വാട്ട്സാപ്പിലേക്ക് അയയ്ക്കാം എന്നിട്ടും ക്ഷീണമാണെങ്കിൽ അതിനെ രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം കേട്ടോ നൈറ്റ് ഇഞ്ചക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതല്ലേ അതിന് അത് പേടിക്കുവൊന്നും വേണ്ട ഇപ്പം ഇഞ്ചക്ഷന് കൊടുത്തിട്ട് എത്ര നാളായി കഴിഞ്ഞ മാസമാണ് കൊടുത്തത് ആ പട്ടിക്കിപ്പം എത്ര വയസ്സുണ്ട് രണ്ട് വയസ്സ് ഉണ്ടല്ലേ ആ നാളെ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ പറയാം എന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ വേറെ കുഴപ്പം ഒന്നും ഉണ്ടാവില്ല പേടിക്കേണ്ട വിഷമിക്കുവൊന്നും വേണ്ട സൂക്ഷിച്ചൊന്ന് കെയർ ചെയ്യുവൊക്കെ പിന്നെ കുട്ടികളെ ഒന്നും അടുപ്പിക്കേണ്ട അതിൻറെ അടുത്തോട്ട് കേട്ടോ